അച്ചടിമാധ്യമങ്ങളായ പത്രം മാസിക തുടങ്ങി വാർത്താചാനലുകളും സോഷ്യൽ മീഡിയയൊക്കെ തമ്മിലുള്ള വ്യത്യാസം ഒരുപാടുണ്ട് അച്ചടി മാധ്യമങ്ങളെന്നൊക്കെ പറയുമ്പോള് തലേദിവസത്തെ ന്യൂസുകളാണ് അച്ചടി മാധ്യമങ്ങളിൽ വരുന്നത് അപ്പോള് അത് കറക്റ്റായിട്ട് വരണമെന്നില്ല ചിലതു ചില മാസികകളിൽ കണ്ടിട്ടുണ്ട് ചില മാസികകളില് സ്ഥലപ്പേര് ചില സമയത്തൊക്കെ ഒരുപാട് മിസ്റ്റേക്കുകളൊക്കെ വന്നിട്ടുണ്ട് അച്ചടി മാധ്യമങ്ങളില് അച്ചടി പത്രത്തിലും മാസികയിലുമെല്ലാം വാർത്താ ചാനലിലൊക്കെയാണെങ്കില് ടി വി തുറന്നാല്പ്പിന്നെ അത് അപ്പോള് ലൈവായിട്ടു കാണിക്കുന്ന പരിപാടികളാണ് ഫുള് ലൈവായിട്ട് കാണിക്കുന്ന പരിപാടിയെന്നു വച്ചിട്ടുണ്ടെങ്കില് എവിടെയെന്തു നടന്നാലും അത് ലൈവായിട്ടുതന്നെ കാണിക്കും അന്നേരം നമുക്ക് ആ സ്പോട്ടിലിരുന്നുകൊണ്ടുതന്നെ നമ്മുടെ നടക്കുന്ന കാര്യങ്ങളും നഗരത്തിലും അതായത് ഗ്രാമപ്രദേശങ്ങളിലും നഗരപ്രദേശങ്ങളിലും നടക്കുന്ന കാര്യങ്ങൾ അപ്പഴപ്പോള്ത്തന്നെ സ്പോട്ടിലിരുന്നുകൊണ്ട് നമുക്ക് കാണാന്പറ്റും അതാണ് അതിൽ അതിലുള്ള ഒരു വിശ്വാസം ഇപ്പോള് എന്നെ വച്ചുനോക്കിയിട്ടുണ്ടെങ്കില് എനിക്ക് വാർത്താ ചാനലുകളിലാണ് ഏറെ വിശ്വാസം വിശ്വാസമെന്നാന്നാ ഇപ്പോള് നമ്മളിപ്പോഴെന്തെങ്കിലുമൊരു കാര്യം കേട്ടുകഴിയുമ്പോള് നമ്മളത് ഒരു ഒരു ഇലക്ഷൻ്റെ കാര്യം വന്നു എവിടേലുമൊരു ദുരന്തമുണ്ടായി വയനാട് ദുരന്തം ഒണ്ടായി ആ ദുരന്തമൊക്കെ ഉണ്ടായ സമയത്താണെന്നു പറഞ്ഞാല്പ്പോലും എപ്പഴും ടി വി വച്ച് ടി വിയുടെ കീഴെത്തന്നെ ഇരിക്കുകയായിരുന്നു അവടെയെന്താ ഉണ്ടായത് എന്താണ് ഉണ്ടായേന്നുള്ളേയൊരു സത്യം പറഞ്ഞാല് ഈ വാർത്താ ചാനലുകളൊക്കെ ഉള്ളതുകൊണ്ടാണ് അന്ന് മനുഷ്യനൊരുപാട് ടെൻഷനടിക്കാതൊക്കെയിരുന്നത് ടെൻഷൻസെന്നു പറഞ്ഞിട്ടുണ്ടെങ്കില് ടെൻഷനെന്നു പറഞ്ഞിട്ടുണ്ടെങ്കില് ഭയങ്കര ടെൻഷനായിരുന്നു അന്നൊക്കെ എന്നു പറഞ്ഞിട്ടുണ്ടെങ്കില് നമ്മുടെ കൂടപ്പിറപ്പുകള് നമുക്ക് നഷ്ടപ്പെട്ടപ്പോള് നമുക്കതനുസരിച്ച് നമുക്ക് കാര്യം വിഷമമായിരുന്നു വിഷമമെന്നു പറഞ്ഞിട്ടുണ്ടെങ്കില് അതൊന്നും കണ്ടാല് പറഞ്ഞറിയിക്കാൻ പറ്റുകേല പത്രത്തിലൊക്കെയാണെങ്കില് പത്രത്തില് പിറ്റേ ദിവസമല്ലേ അറിയാന് പറ്റുകയുള്ളു വാർത്തയ്ക്കകത്താണെങ്കില് അപ്പോള്ത്തന്നെ നമുക്കറിയാന് പറ്റുമല്ലോ അങ്ങനെയൊരു ഒരുപാട് വാർത്തയ്ക്കകത്താണെങ്കിലൊരുപാടുണ്ട് പിന്നെ ഫോൺ മാധ്യമങ്ങളാണെന്നു പറഞ്ഞാലിപ്പോള് പത്രവും പത്രമൊന്നും എത്താത്ത വീടുകളുണ്ട് ടി വിയൊന്നും ഇല്ലാത്ത വീടുകളുണ്ട് ഒരുപാട് ഗ്രാമപ്രദേശങ്ങളിലേക്കു കയറിയാല് ടി വിയൊന്നും ഇല്ലാത്ത വീടുകളുണ്ട് അവരെയൊക്കെ ആശ്രയിച്ചാണെന്നുപറഞ്ഞാലും ഫോണുള്ളതുകൊണ്ടവർക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ അറിയാന് പറ്റും അറിയാന് പറ്റുമെന്നു പറഞ്ഞിട്ടുണ്ടെങ്കില് ആ സ്പോട്ടില്ത്തന്നെ ഓരോരോ കാര്യങ്ങളറിയാന്പറ്റും ഫോണില് അന്നേരം തന്നെയാണെങ്കിലും ഫേക്ക് ന്യൂസുകളും വരും എല്ലാ ന്യൂസുകളും ഫോണിന്റെ അകത്താണേലും വരുന്നതാണ് അപ്പോള് അതിന്റകത്ത് എനിക്കൊരുപാട് വിശ്വാസമുള്ളത് വാർത്താ ചാനലുകളിലാണ് വാർത്താ ചാനലും കുഴപ്പമില്ല ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളും കുഴപ്പമില്ല പണ്ടത്തെക്കാലത്താണെന്നു പറഞ്ഞാല് റേഡിയോയിലായിരുന്നു എല്ലാ സംഭവങ്ങളും അറിഞ്ഞുകൊണ്ടിരുന്നത് അന്നു നമ്മള് റേഡിയോയെ ആശ്രയിച്ചു ജീവിച്ചെങ്കിലിന്നു നമ്മള് ഫോണും ടി വിയും ടി വിയിനെയൊക്കെ ആശ്രയിച്ച് നമ്മള് ജീവിക്കുന്നു ഓരോ കാലങ്ങള് കഴീയുന്തോറും ഓരോന്നിനും ഓരോ മാറിമാറിവരും കാലത്തിനുസരിച്ചോരോ സാങ്കേതിക വിദ്യകള് വരുന്ന വന്നുകൊണ്ടിരിക്കുന്ന പുതിയ പുതിയ സാങ്കേതിക വിദ്യകള് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണിപ്പോള് അപ്പോഴതിനുള്ള കാര്യങ്ങളെല്ലാം വരും അങ്ങനെയുള്ള അച്ചടി മാധ്യമങ്ങളാണെന്നു പറഞ്ഞാലും ഒരുപാട് തലേദിവസമുള്ളത് പിറ്റേ ദിവസമല്ലേ കിട്ടത്തുള്ളൂ അങ്ങനെയൊരു ഒരു ദുരന്തമൊക്കെ ഉണ്ടായിക്കഴിയുമ്പഴ്ത്തേനും അതു കാത്തിരിക്കാനുള്ള ക്ഷമയില്ല നമുക്ക് കാരണം വയനാട്ടില് ദുരന്തമുണ്ടായി അതൊക്കെ ഭയങ്കര ഭയാനകമായിരുന്നു പിന്നേ കൊറോണ വന്നു കൊറോണ വന്നോരോ മനുഷ്യര് വീട്ടിലിരിക്കുമ്പോഴും ഈ ടി വിയൊക്കെയുള്ള സമയത്ത് ടി വിയില്ക്കൂടെയാണ് ഓരോരോ കാര്യങ്ങളും പതിനായിരക്കണക്കിന് മരണം സംഭവിച്ചു ജെ സി ബിയൊക്കെ വന്ന് എല്ലാവരെയും കോരി സംസ്കരിച്ചു അപ്പോഴങ്ങനെയൊക്കെ വന്ന സമയത്തെന്നു പറഞ്ഞാലും പത്രമാണെന്നു പറഞ്ഞാലും പത്രം വീടുകളില് എത്തിയില്ല ന്യൂസ് നമുക്കറിയാൻ ഈ വാർത്താ ചാനലുകളിലും മാധ്യമങ്ങളേ ഉണ്ടായിരുന്നുള്ളു പിന്നെ ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളൊക്കെയേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോള് അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും എനിക്ക് ഏറ്റവും വിശ്വാസം വാർത്താ ചാനലുകളെ തന്നെയാണ് സോഷ്യൽ മീഡിയ ദൃശ്യം ഫോണും വാർത്താ ചാനലുകളില് മാത്രമാണ് എനിക്ക് ഏറെ വിശ്വാസം തന്നിട്ടുള്ളത് ഒരുപാട് കാര്യങ്ങളൊക്കെയറിയാനും എല്ലാത്തിനും വാർത്താ ചാനലുകളാണ് മുൻപന്തിയിൽ നില്ക്കുന്നതും അപ്പോള് എന്നെയപേക്ഷിച്ച് എനിക്കു നോക്കുമ്പോള് എനിക്ക് വാർത്താ ചാനലുകൾതന്നെയാണ് വാർത്താ ചാനലുകളും ദൃശ്യശ്രാവ്യമാധ്യമങ്ങളുമാണ് എനിക്ക് ഏറെ വിശ്വാസമുള്ളത്